ഹലോ പള്ളീലച്ചനാണോ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചാ എൻ്റെ മോളെ കല്യാണത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നേ മെയ് അഞ്ചിന് അപ്പം അവിടെ വേറെ ഏതെങ്കിലും കല്യാണം ഇല്ലെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ആ ഞായറാഴ്ച്ച ഞായറാഴ്ച്ച

ആ എങ്ങനെ പാട്ട് കുർബാന ആണോ അതോ സാദാ കുർബാന ആണോ പാട്ട് കുർബാന അല്ലേ അപ്പോൾ എത്ര ഹവർ എടുക്കും

ഹ്മ് ഹ്മ് ഹ്മ്

മൂന്ന് മണിക്കൂറൊക്കെ ആവും അല്ലേ ആ അപ്പോൾ ഓക്കെ നമ്മൾ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത് റിംഗ് റിംഗ് ഒക്കെ കൊണ്ടുവന്നാൽ പോരേ ആ പിന്നെ ഒത്ത് കല്യാണത്തിന് നമ്മൾ മന്ത്രകോടിയിൽ നിന്ന് തന്നെ നൂൽ എടുത്തിട്ടല്ലേ നമ്മൾ അതായത് താലി ആയിട്ട് ചാർത്തുക അപ്പോൾ അതും കൊണ്ട് വന്നാൽ മതി അല്ലേ അത് ഇപ്പോൾ മന്ത്രകോടിയിൽ നിന്ന് തന്നെ എടുക്കാമല്ലോ അല്ലേ ആ പിന്നെ അതായത് നമ്മൾ പിന്നെ എന്തെങ്കിലും ഡെക്കറേഷൻ ഒക്കെ നമുക്ക് പള്ളിയിൽ ചെയ്യാൻ പറ്റുമോ കല്യാണത്തിന് ആയിട്ടുള്ളത് നമ്മളായിട്ട് വന്ന് ചെയ്യാൻ പറ്റുമോ ആണ് അല്ലേ അവിടെ ഓഡിറ്റോറിയം ഉണ്ടോ ഓഡിറ്റോറിയം ഉണ്ട് അല്ലേ ആ അപ്പോൾ പിന്നെ അങ്ങനെ ആണെങ്കിൽ ഓഡിറ്റോറിയതിന് നമ്മൾ എങ്ങനെയാണ് റേറ്റ് ഒക്കെ തരേണ്ടത് മതിയല്ലേ അങ്ങനെ ആണെങ്കിൽ ഫുഡ് നമ്മൾ അതായത് നമ്മൾ ഒരാളെ ഏൽപ്പിക്കുവാണ് ചെയ്യുന്നത് അത് നമുക്ക് അവിടുന്ന് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമല്ലോ അല്ലേ പിന്നെ നമ്മൾ എല്ലാവരെയും വീട്ടിലേക്ക് കൊണ്ട് പോവേണ്ട ആവശ്യം ഇല്ലല്ലോ ആണല്ലേ ഹാ ഹാ ഹാ ആ ഓക്കെ പേരും ഡീറ്റൈൽസും അല്ലേ ഇല്ല വേറെ ഒന്നും ഇല്ല അങ്ങനെ ആണെങ്കിൽ നമുക്ക് മെയ് അഞ്ചിന് അച്ചൻ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ ആ എന്നാൽ ഓക്കെ ആ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ